ആ ഹലോ ആ പറഞ്ഞോളൂ ആരാ വിളിക്കുന്നത് എന്തോ ആ പറഞ്ഞോളൂ എന്താ ആ അണ്ടിപരിമത്ത് പോലീസ് സ്റ്റേഷൻ തന്നെയാണേ ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ആ ആ ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ എ എവിടെയായിട്ടാണ് താമസിക്കുന്നത് ചുങ്കത്തറയാണോ ആ എന്നാ ഇടവഴികളുണ്ടോ പോകുന്ന വീട്ടിലേക്ക് കയറുന്നിടത്ത് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മനസിലായി ആ ആ എത്ര പേരുണ്ടാവും ഒരേകദേശം ചെറുപ്പക്കാരാണോ ആ ആ ആ പ്രായമായ ആൾക്കാരാണോ അതോ ചെറുപ്പക്കാരാണോ തൊഴിലില്ലാതെ നടക്കുന്നവൻമ്മാരാണോ എങ്ങനെയാണ് കണ്ടാൽ ആ ഉവ്വ ഉവ്വ കണ്ടാൽ അറിയാവുന്നവരാണോ അവരുടെ ഡീറ്റൈൽസ് വല്ലതും അറിയാമോ നിങ്ങളുടെ അയൽവക്കത്ത് ഉള്ളവരാണോ പേരോ അഡ്രസ്സോ കാര്യങ്ങളോ വല്ലതും അറിയാമോ അറിയത്തില്ല ഓക്കെ ആ ഇപ്പോൾ സാധാരണഗതിയില് സാധാരണ ഗതിയില് നിങ്ങളെ ഏത് സമയത്താ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഓഫീസ് സമയത്താണോ അതോ അല്ലാത്ത സമയത്താണോ ഏകദേശം ഒരു സമയം പറയാമോ ഞങ്ങൾക്ക് ആ സമയത്തോട് അനുബന്ധിച്ച് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് ആ വൈകുന്നേരം ഉള്ള സമയത്താണല്ലേ ഓ ആ ഉവ്വ് ഉവ്വ് മനസിലായി ആ നിങ്ങൾ ഒരു റിട്ടൺ കംപ്ലയിന്റ് തരാമോ ആ ഒരു അതല്ലേ പോലീസ് സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മെയിലിൽ ഒന്നു സെന്റ്യ്താലും മതി അപ്പോൾ ഞങ്ങളത് ആക്സെപ്പ് ചെയ്തോളാം അതില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ എന്നാൽ ലൈനിൽ ഉള്ളപ്പോൾ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സൈനൂടെ കളക്ട് ചെയ്തിട്ട് ഒരു മാസ് പെറ്റിഷ്യൻ പോലെ തരികയാണെങ്കിൽ ഞങ്ങള് എത്രയും വേഗം അതിനുള്ള സൗകര്യങ്ങള് ഏതായാലും ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് ആൾക്കാരെ കണ്ടെത്താം മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഏതേലും ഒരു പയ്യനെ അറിയാമെന്നുടെങ്കില് ഞങ്ങൾക്ക് അവനെ ട്രെയിസ് ചെയ്തേച്ച് അവന്റെ കൈയിൽ നിന്നു ഞങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഡീറ്റൈൽസ് എടുക്കാ പറ്റും അതുകൊണ്ടാണ് അതും കൂടി ഒന്നു പ്രത്യേകം ബാക്കിയുള്ളവരോടു കൂടി ഒന്ന് ഓക്കെ ആ ഉവ്വ ഉവ്വ എത്ര എത്രയും വേഗം കംപ്ലയിന്റ് തരുവാണെങ്കിൽ ഞങ്ങള് അതിനുള്ള ആക്ഷൻ എടുത്തോളാം കേട്ടോ